അടുത്തകാലത്ത് മലയാളികളെല്ലാം തന്നെ കേരളത്തിൽ കേരളത്തിലെന്നല്ല മലയാളികളെല്ലാം തന്നെ ഈ പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധേയമാണ് ഇതിന് നിരവധി കാരണങ്ങളുമുണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നത് ഒരാളുടെ വീടിനെ ഭംഗിയുള്ളതാക്കുകയാണ് ചെയ്യുന്നത് അത് മനോഹരമാക്കാനുള്ളൊരു മികച്ച മാർഗ്ഗം തന്നെയാണ് നമ്മുടെ വീട് മനോഹരമാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് പൂച്ചെടികൾ ഒരു സ്ഥലത്തിന് ആ പൂവുകളുടെ നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും ഒരു എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരൂ ഫീലാണ് നൽകുന്നത് ഇത് കൂടുതൽ നമ്മളുടെ ചുറ്റുപാടിനെ അട്രാക്റ്റീവാക്കുന്നു മറുവശത്ത് അടുക്കളത്തോട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായി പഴങ്ങളും പച്ചക്കറികളും വളർത്താനുള്ളൊരു അവസരമാണ് അവിടെ നൽകുന്നത് ഇത് വളരെ ഇത് വളരെ സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നതിൽ മലയാളികൾ താല്പര്യം കാണിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്തെന്ന് പറയുകയാണെങ്കിൽ അതൊരു പരിഹാരമായിരിക്കാം അതായത് ചെടികൾ വളർത്തുന്നതും അവ വളരുന്നത് കാണുന്നതും വളരെ ചികിത്സാപരമായ അനുഭവമാണ് മനസ്സിനെ ശാന്തമാക്കാനും സ്ട്രെസ്സുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും പിന്നീടിതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടും ഞാനിതിനെ കാണുന്നു കൂടാതെ സ്വന്തമായി പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്നത് പരിസ്ഥിതിക്ക് ദോഷകരമായേക്കാവുന്ന ഒരു കാര്യമല്ല അതിനെ സഹായിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കോവിഡ് കാലത്ത് പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നതിനുള്ള താല്പര്യം വർദ്ധിച്ചതിൽ ഒരു പങ്കുവഹിച്ചവരായിരുന്നു മലയാളികൾ പലരും വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിച്ച് പൂന്തോട്ട പരിപാലനവും ചെടികളെല്ലാം നട്ടുവളർത്തുകയുമായിരുന്നു അവരുടെ ഒരുപാട് പേരുടെ ഹോബികൾ അതുകൊണ്ടുതന്നെ മലയാളികൾക്കിടയിൽ പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നതിനുള്ള ഒരു കാരണം ഇതുകൂടി ആകാം കാരണം അവർ വളരെ സമയം കണ്ടെത്തി ഇതിൽ വളരെ എഫേർട്ട് ഇട്ട് അവർ ചെടികളും പൂന്തോട്ടങ്ങളും പച്ചക്കറികളുമെല്ലാം വളർത്തി അവരുടെ ഒരു സന്തോഷത്തിനായി അവർ സമയം കണ്ടെത്തുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കൂടാതെ അതിൻ്റെ സാധ്യതയുള്ള ആരോഗ്യകരമായ ഗുണങ്ങളും ഇതിലുൾപ്പെടുന്നുണ്ട് പൂക്കളായാലും പച്ചക്കറികളായാലും മലിനമല്ലാതെ നമ്മൾ തന്നെ സ്വന്തമായി നട്ടുവളർത്തുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും